അഭിരാമൻ ചേട്ടനാണോ ആ ഞാൻ അ കോട്ടയത്ത് നിന്നാണ് നമുക്ക് ഒന്ന് മണ്ണാറശ്ശാല ടെമ്പ അമ്പലം വരെ ഒന്ന് പോകണമായിരുന്നു നാളെ

നാളെ ഒരു പതിനൊന്ന് മണിക്ക് ആണ് പോകേണ്ടത് രാവിലെ ഉണ്ട് ഉണ്ട് നമ്മൾ ഞാനും അമ്മയും കൂടെ ആണ് വരുന്നത് രണ്ട് പേരേ ഉള്ളൂ ആ ഞാൻ ശ്രീദേവിയാണ് ആ ഞങ്ങൾ നമ്മൾ ഒന്ന് ഞാൻ ചേട്ടൻ്റെ ഫോൺ നമ്പർ മേടിച്ചായിരുന്നു അന്ന് കോട്ടയത്ത് വന്നപ്പത്തേനും നമ്മൾ കഴിഞ്ഞ ദിവസം പോയില്ലായിരുന്നോ കോട്ടയം തിരുനക്കര വരെ അതെ അതെ

അതെ അതെ പതിനൊന്ന് മണിയാകുമ്പോൾ ചേട്ടൻ ഫ്രീ ആയിരിക്കത്തില്ലേ എന്തെിലും തിരക്ക് ഉണ്ടാകുമോ ഉണ്ട് ഉണ്ട് വേറെ നമുക്ക് പോകാൻ ഉണ്ടായിരുന്നു അടുത്ത് തന്നെ കുറച്ച് സ്ഥലങ്ങളിൽ പോകണമായിരുന്നു അതെ അതെ ഉച്ച ഉച്ച ഉച്ച ഒരു ഒരു രണ്ടര ഒക്കെ ആകുമ്പത്തേനും തിരിച്ച് വരുന്ന രീതിയിൽ

ഇല്ല ഇല്ല ഇല്ല താമസം ഇല്ല ഇല്ല ഇല്ല എൻ്റെ വീട്ടിലോട്ടാണ് വരേണ്ടത് ചിങ്ങവനത്തോട്ട് കോട്ടയം

ആ പനച്ചിക്കാട് പോകുന്ന റൂട്ടിലോട്ടാണ്

ആ ആ ഓക്കെ ചേട്ടാ എന്നാൽ ആ ശരി ശരി ഇല്ല ഇല്ല ഇല്ല ഓക്കെ താങ്ക്യൂ